ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് തലമുറകളായിട്ട് നമ്മൾക്ക് കൈമാറി വന്നിട്ടുള്ള പാചകവിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാറെന്ന് പറഞ്ഞ സംഭവം എന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പണ്ടു മുതലേ കേട്ടിട്ട് ഉള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നല്ല രീതിയിലെനിക്ക് ഉണ്ടാക്കാന് വേണ്ടിയിട്ട് ഇഷ്ടമാണ് കാരണം എന്നു വച്ചു കഴിഞ്ഞാൽ പണ്ടുള്ള ആള്ക്കാരൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ സാമ്പാറ് ചോറ് ഇങ്ങനെ ഇതുമാത്രം കൂട്ടിയിട്ടാണ് കൂടുതലായിട്ടും കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് നമ്മൾക്ക് ഇപ്പോഴും ഉണ്ടാക്കാന് അറിയാം അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതാണ് അതിൻ്റെയൊരു ഇതെന്നു പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് മുതലെ നമ്മള് കേട്ടു വരുന്നൊരു കാര്യമാണ് സാമ്പാറെന്നുള്ളത് പിന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ രസമുണ്ട് രസം നല്ല രീതിയില് നമ്മൾക്ക് ഉണ്ടാക്കാന് വേണ്ടി സാധിക്കുന്നതാണ് രസം നല്ല അടിപൊളി ആയിട്ടുണ്ടാക്കുകയാണെങ്കില് അത് നമ്മൾക്ക് വെറുതെ ഇരുന്ന് കുടിക്കാന് തന്നെ ഒരു രസമാണ് കാരണം എന്താ വെച്ചു കഴിഞ്ഞാല് അതിനാണ് രസം എന്നുള്ളൊരു പേരുതന്നെ വന്നത് നമ്മൾക്കത് രസത്തിന് വേണ്ടിയിട്ട് കുടിക്കുന്നൊരു സാധനമാണ് അപ്പോൾ നമ്മുടെ വയറ്റിലുള്ള നമ്മളെ വയറ്റിലിപ്പോൾ ദഹിക്കാനൊക്കെ നല്ലതാണ് ഈ രസം എന്നു പറഞ്ഞു കഴിഞ്ഞാല് അത് ചിലവര് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിലവരുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കും ഇതൊക്കെ നമ്മൾക്ക് പഴയ ആ തലമുറക്കാര് നമുക്ക് കൈമാറി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്